ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സാംസ്കാരിക പരിപാടികൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ആചാരത്തിൻ്റെ ആണെങ്കിലും അനുഷ്ഠാനത്തിൻ്റെ ആണെങ്കിലും പല രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളാണ് കൂടുതലായിട്ടും കോഴിക്കോട് ജില്ലയിലൊക്കെ നടന്ന് വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മളെ ഇവിടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഐക്യത്തോടെ ആണ് എല്ലാ കാര്യവും മുന്നോട്ട് കൊണ്ട് പോവുന്നത് ഇപ്പോൾ മുസ്ലീംസിൻ്റെ ഓരോ പരിപാടികൾ ആണെങ്കിലും ഹിന്ദുക്കളുടെ പരിപാടികൾ ആണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ പരിപാടി ആണെങ്കിലും നമ്മളിപ്പോ ഒരു നബിദിനം ഉണ്ടെങ്കിൽ നമുക്ക് നബിദിനത്തിന് പിള്ളേരുടെ ദഫ് മുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റോഡിലൂടെ പോവുമ്പോൾ നമ്മളിപ്പോൾ ഹിന്ദുക്കളാണ് കൂടുതലായിട്ടും അവർക്ക് പായസവും കാര്യങ്ങളും ഒക്കെ കൊടുക്കാറ് ഇപ്പോൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ആണെങ്കിൽ നമ്മൾ മുസ്ലീംസ് നമുക്ക് എന്താ പറയുക ഒരു മതത്തിൻ്റെ വേർതിരിവോ ഒന്നും കാണിക്കാണ്ട് തന്നെ അവർ നമുക്ക് വെള്ളവും കാര്യങ്ങളും ഇപ്പോൾ പായസം അടക്കം അവർ വച്ച് തരാറുണ്ട് അങ്ങനെ പല രീതിയിലും അവർ നല്ല രീതിയിൽ നമ്മളെ സഹകരിക്കാറുണ്ട് നമ്മളൊരു ഐക്യത്തോടെയാണ് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമുക്ക് പല രീതിയിലുള്ള രീതികളും സംസ്കാരങ്ങളും ആചാരങ്ങളും ഒക്കെ ആണെങ്കിലും എല്ലാം ഒരേ പോലെയാണ് നമ്മൾ കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം